എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കല്യാണം അപ്പോൾ ഞാനിവിടെ നിന്ന് തലേ ദിവസം വൈകുന്നേരം പോയി രാവിലെ എത്തുന്ന പോലെ പോകാനാണ് തീരുമാനിച്ചത് ഞാൻ പാലക്കാട് ഒലവക്കോട് റെയിൽ വേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ട്രെയിനിൽ തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവടവടെയായിട്ട് കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഇരുന്ന സീറ്റെല്ലാം കാലിയായിരുന്നു ഞാൻ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കയറിയത് തിരക്കുണ്ടാകുമെന്ന് വിചാരിച്ചാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തത് പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല വെറുതെ ബുക്കിംഗ് ചാർജ്ജൊക്കെ കൊടുക്കേണ്ടി വന്നു ട്രെയിനിൽ തീരെ ആളുകളില്ലാത്തതു കൊണ്ട് ഞാൻ സീറ്റിൽ കിടന്നാണ് യാത്ര ചെയ്തു പോയത് ഇന്നലെ ഒരു സീറ്റ് സ്മൂത്തായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങി പോകാൻ പറ്റി പിന്നെ ഇടക്ക് ട്രെയിനിൻ്റെ സൗണ്ട് കേട്ട് എണീറ്റു ട്രെയിനിൻ്റെ വണ്ടിയിങ്ങനെ സ്ലോ ആക്കുമ്പോൾ ചക്രങ്ങളും ട്രാക്കും തമ്മിൽ ഉരയുന്നൊരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് കേട്ട് ഞാൻ എണീക്കുകയാണ് ചെയ്തത് ആ സൗണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എണീറ്റു ഈ ട്രൈനിങ്ങനെ ഓരോ സ്റ്റേഷനിലും ഇടക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതിലെ ഓരോ ട്രെയിനും പോകാം പാസ്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരിടക്ക് ഓരോ സ്റ്റേഷനിലിങ്ങനെ നിർത്തിയിട്ടിട്ടാണ് പോയത് അങ്ങനെ ട്രെയിനിൻ്റെ സമയം കുറച്ച് വൈകി പിന്നീട് ട്രെയിനിൻ്റെ എൻജിൻ കുറച്ച് സ്പീഡിലാണ് പോയത് പിന്നെ ട്രെനിങ്ങനെ പോകുമ്പോൾ ഓരോരോ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഓരോ പുഴയുടെ മുകളിൽ കൂടെയൊക്കെ ട്രെയിൻ പോകുമ്പോൾ വെള്ളം കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ചെറിയ തോണികളൊക്കെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴു ഒഴുകി പോകുന്നുണ്ടായിരുന്നു അതുപോലെ ഓരോ കാട്ടിൻ്റെ കാടുകളുടെ ഇടയിൽ കൂടിയൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ഓരോ സ്റ്റേഷനിലൊക്കെ ആളുകൾ സ്റ്റേഷൻ മാസ്റ്റർമാരിങ്ങനെ അവർ ലൈറ്റ് ട്രെയിൻ പാസ്സ് ചെയ്ത് പോകുമ്പോൾ ചുവപ്പും പച്ചയും ലൈറ്റൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു രാത്രിയിലും അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് അതുപോലെ ഇടക്കിടക്ക് ഓരോ സ്റ്റേഷനിൽ ആ കച്ചവടക്കാരൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ട്രെയിനിൽ തിരക്ക് തീരെ ഇല്ലാത്തതു കൊണ്ട് അവർ കച്ചവടമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു അതവരെയൊക്കെ സാരമായി ബാധിച്ചിട്ടുണ്ടാകും അതുപോലെ പിന്നെ ഞാൻ വെളുപ്പിന് അഞ്ച് മണിക്കാണ് അവിടെ എത്തിയത് സ്റ്റേഷനിൽ എത്തുന്നതിനു മുമ്പ് തന്നെ ഞാൻ ട്രെയിനിൽ നിന്നു തന്നെ ഫ്രഷ് ആയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ട്രെയിനിലെ ആ ഒരു സൗകര്യം വളരെ പ്രയോജനപ്പെട്ടു അതൊരു നല്ലൊരു കാര്യമായിരുന്നു ട്രെയിനിൽ നിന്ന് ഫ്രഷ് ആയി പോകാൻ പറ്റിയത് തിരക്കില്ലാത്തതു കൊണ്ടും നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു ഫ്രഷ് ആകാനൊക്കെ പിന്നെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ടോയ്ലെറ്റും കാര്യങ്ങളെല്ലാം നല്ലൊരു അനുഭവമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ ഇത്രയും വൃത്തിയിൽ കാണുന്നത് പിന്നെ ഞാൻ കൃത്യമായിട്ടൊരു അഞ്ച് അഞ്ചര ആകുമ്പോഴേക്കും സ്റ്റേഷനിലെത്തി ഇറങ്ങി പോവാ ചെയ്തത് നേരത്തെ റെഡി ആയത് കൊണ്ട് നേരെ കല്യാണത്തിന് പോകാൻ പറ്റി നല്ലൊരു അനുഭവമായിരുന്നു ആ ട്രെയിൻ യാത്ര